ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധിയും മറ്റു നേതാക്കന്മാരൊക്കെ ഒരുപാട് സാ സമരങ്ങളും പിന്നെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു ചെയ്തത് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണെങ്കിലും പിന്നെ നിസ്സഹകരണ സത്യാഗ്രഹത്തെക്കുറിച്ച് ആണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം മഹാത്മാഗാന്ധി മറ്റു നേതാക്കന്മാരൊക്കെ പിന്നെ ഇങ്ങനത്തെ സത്യാഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ സ്വാതന്ത്രത്തോടെ നമ്മുടെ നമ്മൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മള് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും അത് നമുക്ക് മറക്കാൻ പാടില്ല അവരുടെ ചോര നീരാക്കിയതിൽ ആണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോഴും മനസ്സിൽ മഹാത്മാഗാന്ധിനെ ഒക്കെ ചിന്തിക്കാ ഓർക്കണം എപ്പഴും ആ നന്ദി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ജീവൻ വരെ ത്യജിട്ടാണ് നമുക്ക് ഇപ്പ നമുക്ക് ഇപ്പൊ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് ഈ സത്യാഗ്രഹങ്ങൾ ഒക്കെ നടത്തിയത് കൊണ്ടാണ് നമുക്കിപ്പോൾ സ്വാതന്ത്രത്തോടെ നമ്മൾ ഇപ്പഴും ജീവിക്കുന്നത്